എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ക്യാത്തലിക് സിറിയൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവയെക്കെയാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള പൊതു മേഖലാ ബാങ്കുകൾ ഇതില് എല്ലാവരുടെ അടുത്തും തന്നെ നമുക്ക് വായ്പുകൾ ലഭ്യമാണ് ഇൻഷുറൻസും ഉണ്ട് അതെ അതുപോലെ അതുപോലെ തന്നെ നമ്മള് തിരിച്ചടവുകളും കറക്റ്റായിട്ട് നടത്തണം അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ബാധ്യതകൾ ഉണ്ടാകും നമുക്ക് നിലവിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും തിരിച്ചടവ് കറക്റ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും ഭാവിയിലേക്ക്